ആ ഓ മീനെടേലെ നല്ല മീനുണ്ട് പിടയ്ക്കുന്ന മീൻ മത്തിയുണ്ട് അയലയുണ്ട് കൊറിയാളയുണ്ട് ഞണ്ടുണ്ട് കൊഞ്ചുണ്ട് ഏത് വേണം ഓ യത് പ ആ യ ഇത് ഇപ്പോൾ പിടയ്ക്കുന്ന മീനാണ് വാങ്ങി നോക്കൂ ആ കൊഞ്ചിന് അറുന്നൂറ് രുപയാണ് കിലോ ഓ ഞണ്ടിന് ആ എഴ്ന്നൂറ്റൻപത് രൂപയാണ് ആ ആ ഇത് ഇത് ഈ മീനിന് വന്നെ കൊടുക്കണം ഇപ്പം ഈ കൊഞ്ചും ഞണ്ടും വരുന്ന സീസണല്ല എന്നിട്ടും നല്ല ഞണ്ടും നല്ല കൊഞ്ചുവാണ് ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വാങ്ങിയാൽ മതി ആ കാരണം ഇതിന് ഭയങ്കര വിലയാണ് ഇപ്പം കിട്ടാത്ത സാധനവാണ് ആ സീസണായിട്ടില്ല ആ മേഡം നമ്മളെ മേഡം ഞങ്ങളേന്ന് വാങ്ങിയിരുന്നത് കൊണ്ടാണ് ഞാൻ അറുന്നൂറ്റൻപത് രൂപ എന്ന് പറഞ്ഞത് ഞാൻ എഴുന്നൂറ്റൻപത് രൂപയ്ക്കാണ് കൊഞ്ച് കൊടുത്തോണ്ടിരുന്നത് ഇപ്പോൾ വേണമെങ്കിൽ മാഡത്തിന് അറുന്നൂറ് രൂപയ്ക്ക് തരാം അതും എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടമാണ് ഉണ്ടാവുന്നത് മേഡം സ്ഥിരമായിട്ട് എൻറ്റേന്ന് വാങ്ങുന്നത് കൊണ്ട് ഞാൻ വിട്ട് തരുന്നതാണ് പിന്നെ മേഡം ഞണ്ട് നല്ല ചതയുള്ള ഞണ്ടാണ് നഷ്ടവൊന്നും ഉണ്ടാവൂല ആ ആ അതിന് ഓ കുഴപ്പമില്ല അത് നന്നാക്കി തരാൻ ഇവിടെ ആളുണ്ട് നന്നാക്കി തരും ആ ഓരോ കിലോ മതിയോ കൂടുതൽ തരാം പിന്നീട് വന്നാൽ ഇത് കിട്ടത്തില്ല അത്കൊണ്ട് നല്ല മീനായത് കൊണ്ട് ഓ രണ്ട് കിലോ എടുത്താൽ അത്രയും നന്നായിരിക്കും കാരണം എപ്പോഴും വരുന്ന മീനുകളല്ല ഇത് രണ്ടും അത്കൊണ്ട് നല്ല മീൻ വേണമെങ്കിൽ ആ രണ്ട് കിലോ വീതം വാങ്ങിച്ചോണ്ട് പോവൂ മേഡം അത് ക്ലീൻ ചെയ്ത് ഇത് ക്ലിയറാക്കി തരും തരുന്നതാണ് അപ്പം ഓ മേഡത്തിനത് അത് അധികം ബുദ്ധിമുട്ടില്ലാതെ ഉണ്ടാക്കാം അറുന്നൂറ് രൂപ ഞാൻ പറഞ്ഞില്ലെ അറുന്നൂറ്റൻപത് രൂപയ്ക്കുള്ളത് അറുന്നൂറ് രൂപയ്ക്ക് തരാം ആ കാരണം മേഡം രണ്ട് കിലോ വാങ്ങുന്നത് കൊണ്ടാണ് ആ ഒരു വിലയ്ക്ക് ഞാൻ തരുന്നത് പിന്നെ മേഡം സ്ഥിരമായി എൻ്റെ കസ്റ്റമറും ആയത് കൊണ്ടും ഞാൻ വില കുറച്ചതാണ് ആർക്കും ഈ വിലയ്ക്ക് ഞാൻ കൊടുക്കുന്നില്ല മേഡം അന്വേഷിച്ച് നോക്കിയാൽ മനസ്സിലാവും ആ ഒരു കിലോ അറുന്നൂറാണ് ആ ഓ അത് കമ്മിയാണ് പിന്നെ പോട്ടെ മേഡം ആ മേഡത്തിനായോണ്ട് തരാം

ഇല്ല ഇല്ല ഇല്ല ഇല്ല ഒരിക്കലും മേഡത്തിന് ഞാൻ ചീഞ്ഞത് തരാറില്ല നല്ലത് മാത്രമേ തരുവൊള്ളു കാരണം സ്ഥിരമായി വാങ്ങുന്നവരെ ഞാൻ പറ്റിക്കാറില്ല ആ അത്കൊണ്ട് ആ മേഡം കൊണ്ട് പോയിട്ട് അങ്ങനെ എന്തെങ്കിലും മ വരികയാണെങ്കിൽ തിരിച്ച് കൊണ്ട് പോരു ഒരു കുഴപ്പവുമില്ല ഞാൻ എടുക്കും ആ വന്നെ എന്തായാലും ആ മേഡത്തിന് ഞാൻ രണ്ട് കിലോ കൊഞ്ചും രണ്ട് കിലോ ഞണ്ടും എടുത്ത് വെച്ചിരിക്കാം മതിയല്ലോ മേഡം വേറെ മീനൊന്നും വേണ്ടല്ലൊ മേഡം ഓ സാൽമൺ ഇവിടെ ഇല്ലയ് മേഡം ആ കിട്ടുമ്പോൾ ഞാൻ മേഡത്തിനെ അറിയിക്കാം മേഡം അപ്പോൾ വന്നാൽ മതി ആ കിട്ടുമ്പോൾ തന്നെ ഒന്ന് ഞാൻ അറിയിക്കാം ഓക്കെ ഓക്കെ ശരി മേഡം